ഹലോ റിലാക്സ് റെസ്റ്റോറൻ്റല്ലേ ഞാൻ അവിടെ അവിടെ നിന്ന് ഇന്നലൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഓർഡർ ചെയ്തു കഴിഞ്ഞപ്പം സാധനം എനിക്ക് വേറെയാണ് കിട്ടിയത് അല്ല അല്ല ഞാ ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല എനിക്ക് കിട്ടിയത് കാരണമെന്താ വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് ചിക്കൻ ബിരിയാണിയും മൂന്ന് ബീഫ് ബിരിയാണിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് വെറും വെജിറ്റേറിയൻ ഫുഡ്സ് ആണ് അതായത് വേറെ എങ്ങോട്ടോ നിങ്ങൾ അയക്കേണ്ട സാധനമാണ് എനിക്കയച്ചിരിക്കുന്നത് അല്ല അങ്ങനെത്തന്നെയാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് വന്നിരിക്കുന്നത് സംഭവം എനിക്ക് സംഭവം ഇത് മനസ്സിലായി നിങ്ങൾക്കെങ്ങനെയാണ് തെറ്റ് പറ്റിയത് എന്ന് പക്ഷേ നിങ്ങൾ സമ്മതിക്കുന്നില്ല പക്ഷേ എനിക്കെന്തായാലും എന്റെ എനിക്കെന്റെ ക്യാഷ് എനിക്ക് റീഫണ്ട് തരണം കാരണമെന്താ വെച്ചു കഴിഞ്ഞാൽ ഞാനീ സാധനമല്ല ഓർഡർ ചെയ്തത് ഞാൻ അല്ല ഞാൻ അപ്പം തന്നെ അവരുടെ അടുത്ത് കൊടുത്തു വിട്ടു ഞാനത് ഉപയോഗിച്ചിട്ടോ കഴിച്ചിട്ടോ ഒന്നുമില്ല ഇനിയിപ്പോൾ അഥവാ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന്റെ പൈസ തന്നെന്നേ പക്ഷേ എനിക്ക് സാധനം വേറെയാണ് കിട്ടിയത് അപ്പം വേറെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മളതിന്റെ പേരിൽ ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ താത്പര്യമില്ല ഞാനാ ഡെലിവറി ബോയിന്റടുത്തു തന്നെ തിരിച്ച് കൊടുത്ത് വിട്ടു അപ്പം അവരു പറഞ്ഞു നിങ്ങളുടെ ഏജൻസിയെ വിളിക്കണം അവരാണിത് പാക്ക് ചെയ്തു തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത് എന്തായാലും എനിക്ക് റീഫണ്ട് എനിക്ക് കിട്ടിയെ പറ്റുകയുളളു എനിക്കിപ്പോൾത്തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങളിട്ടു തന്നേ പറ്റുകയുളളു എനിക്ക് വേറൊന്നും പറയാനില്ല ഇല്ലെങ്കിൽ ഞാനിതിനെതിരെ എന്താ പറയുക നിയമപരമായിട്ട് നേരിടുകത്തന്നെ ചെയ്യും